ഇപ്പം പെട്ടെന്നൊരു കാര്യം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാം പിന്നെ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഓരോര് ഓരോ സ്ഥലത്ത് എങ്ങനെ പെരുമാറണം നമ്മളെക്കാളും മൂത്തവർ ഇളയവർ അങ്ങനെ ഉള്ളവരോടുള്ള കാര്യങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ടീം വർക്ക് നമ്മൾ ടീം ആയിട്ട് നിൽക്കുമ്പം നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുപോലെത്തന്നെ സമയം സമയം എങ്ങനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴത്തേനും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ഇങ്ങനെ ഉപകരിക്കുന്നതായിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രശ്നത്തിൽ പെടുമ്പോഴും നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ കഴിവും കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ടീം വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ അത് മറികടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സുഹൃത്തുക്കളെ നമുക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിനും സന്തോഷത്തിനും എല്ലാം ഈ സുഹൃത്തുക്കൾ സഹായിക്കുന്നതായിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ആരോഗ്യം നമ്മുടെ ശാരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ ഡെയിലി ഓടുന്ന ഇപ്പം ഫുട് ബോൾ കളിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഓടുമ്പം നമ്മുടെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ വിനോദത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ലഭിക്കുന്നു